ഞാൻ ഏക്ച്വലി ഞാനൊരു സ്വിമ്മറാണ് സ്വിമ്മറാണ് എന്നെ സംബന്ധിച്ച് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വിനോദവും സ്വിമ്മിങ് തന്നെയാണ് കാരണം ഞാനെൻ്റെ നാലാമത്തെ വയസ്സ് തൊട്ട് സ്വിമ്മിങ്ങിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നൊരു വ്യക്തിയാണ് വേറെ തന്ത്രങ്ങളെന്നു പറയുന്നത് സ്വിമ്മിങ്ങിൽ നാല് ഇവന്റാണുള്ളത് ഫ്രീ സ്റ്റൈയിൽ ബാക്ക് സ്ട്രോക്ക് ബ്രസ്റ്റ് സ്ട്രോക്ക് ബട്ടർഫ്ളൈ ഇതിൽ എൻ്റെ ഈവെൻ്റെന്നു പറയുന്നത് ബ്രസ്റ്റ് സ്ട്രോക്കാണ് ഇത് നമുക്കി നാല് ഇവൻറ്റിലും കോമ്പറ്റീഷൻസ് വരുന്നത് ഫ്രീ സ്റ്റൈലിൽ മാത്രം ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എയിറ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബാക്കി മൂന്ന് ഈവൻറ്റിനും ബ്രസ്റ്റ് സ്ട്രോക്ക് ബാക്ക് സ്ട്രോക്ക് ബട്ടർഫ്ലൈ ഈ മൂന്ന് ഇവൻറ്റിനും ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മുകളിലാണ് കോമ്പറ്റീഷൻസ് വരുന്ന അത് നമുക്കൊരു റിലേയ്സ് ആണ് അവൈലബിളായിട്ടുള്ളത് ഇതിൽ തന്ത്രങ്ങളെന്നു പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലി സ്കിൽസും നമ്മുടെ പ്രാക്ടീസാണ് നമ്മളുടെ സ്വിമ്മിങ്ങിൽ നമ്മളെ മുന്നോട്ട് സ്വിമ്മിങ് സ്വിമ്മിങ്ങിൽ നമുക്കൊരു വിജയം തരുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സർസൈസാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡിയോ ആണ് സ്വിമ്മിങ്ങ് സ്വിമ്മിങ്ങ് ഒരു കോമ്പറ്റീഷനെന്നല്ലാതെ തന്നെ ബോഡി ഹെൽത്ത് ഒരു നമ്മളൊരു വൺ വീക്ക് കണ്ടിന്യുസ് യോഗ ചെയ്യുന്നതിന് തുല്യ ആണ് വൺ അവർ പ്രോപ്പർ സ്വിമ്മിങ്ങ് ചെയ്തതിലൂടെ നമുക്ക് ബോഡിക്ക് കിട്ടുന്ന അത്ര എർണിങ്ങ്സാണ് നമുക്കുണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം വെച്ചു നോക്കുമ്പോൾ സ്വിമ്മിങ്ങെന്നു പറയുന്നത് ഒരു തന്ത്രപരമായുള്ള ഗെയിമിന് പകരം ബോഡിയിലെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു എക്സർസൈസാക്കി എടുത്തു കൂടെ എന്തു കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ആ അപ്പോൾ സ്വിമ്മിങ്ങിലേക്ക് കോമ്പറ്റീഷൻസിനു ഇറങ്ങുന്നവർ വളരെ കുറച്ചായിരിക്കും എങ്കിൽ കൂടിയും എന്തു കൊണ്ട് എല്ലാവരും സ്വിമ്മിങ്ങ് പഠിച്ചു സ്വിമ്മിങ്ങ് ഒരു ലൈഫിലാവശ്യം ഉള്ള അത്യാവശ്യ ഘടകങ്ങളിലൊന്നാണ് സ്വിമ്മിങ്ങ് എന്തു കൊണ്ട് എല്ലാവർക്കും സ്വിമ്മിങ്ങ് പഠിച്ചു കൊണ്ട് ലൈഫൊന്ന് സെയിഫാക്കി കൂട ഇൻകേസ് വെള്ളത്തിൽ പോകുകയെന്നു പറയുന്നത് നൂറിൽ തൊണ്ണൂറ് ശതമാനം നടക്കുന്നൊരു കാര്യമാണ് വെള്ളത്തിൽ വീഴുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് അപ്പോൾ ഒരു ലൈഫ് സ്കില്ലായിട്ട് എന്തു കൊണ്ട് സ്വിമ്മിങ്ങ് മുമ്പോട്ട് കൊണ്ടു പൊയ്ക്കൂട നിയമങ്ങളെന്നു പറഞ്ഞാൽ നമുക്ക് പിന്നീട് കോ നമുക്ക് വാട്ടർ പോളോ ഗെയിംസിലാണ് നിയമങ്ങൾ വരുന്നത് സ്വിമ്മിങ്ങിനായി അല്ലാതെ വേറെ നിയമങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മുടെ സ്ട്രോക്ക് നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുക ബെസ്റ്റ് ടൈമിന് സ്വിമ്മ് ചെയ്യുക ഇൻഡിവിജ്വലി ആണ് നമ്മളുടെ മാക്സിമത്തിലാണ് നമ്മുടെ മെഡലുകളെല്ലാം ഇരിക്കുന്നത് അതാണ് നമ്മൾ മെയിനായിട്ടും നോക്കേണ്ടത് എനിക്ക് സ്വിമ്മിങ്ങിനൊരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി എടുക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം എൻ്റെ ഹെൽത്ത് എൻ്റെ ബോഡി അത് സെയിഫാക്കാൻ വേണ്ടി ഉള്ള ഡെയിലി എക്സർസൈസാക്കി കൂടെ എന്നാണ്